ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഒക്കെ ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് എന്റെ എന്താണ് പറയുക ഞാൻ ഓടിച്ച ഒരു വാഹനം ആക്സിഡന്റ് ആയത് അപ്പോൾ ഞാൻ ഞാനായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്തത് അപ്പോൾ എന്താണ് പറയുക രണ്ടുപേർക്കിട്ട് ഞാൻ നടന്നുപോയ ഒരു രണ്ടുപേർക്കിട്ടായിരുന്നു വാഹനം എൻ്റെ വാഹനം നിയന്ത്രണം വിട്ട് അതായത് സ്റ്റിയറിങ്ങിൻ്റെ കണക്ഷൻ വിട്ടുപോയി അതുകൊണ്ട് അവർക്കിട്ട് വാഹനം തട്ടുകയുണ്ടായി അപ്പൊ അവർക്ക് കുറച്ച് ഗുരുതരമായ പരിക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ കോമയിലോ അങ്ങനെ ഉള്ള അവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് കാരണം എൻ്റെ കൂടെ നിൽക്കാനൊന്നും ആരും ഇല്ലാണ്ടായി അപ്പോൾ വീട്ടുകാർ മാത്രമാണ് എനിക്ക് സപ്പോർട്ട് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് പറയുക സ്വന്തം നാട്ടിലുള്ളവർ വരെ എനിക്കെതിരായിട്ടാണ് സംസാരിച്ചത് പിന്നെ എന്താണ് പറയുക പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തപ്പോഴാണ് എല്ലാം നോക്കി വന്നു കഴിഞ്ഞപ്പോൾ തെറ്റ് എന്റേതാണെന്ന് മനസ്സിലാവുകയും അപ്പോൾ ഈ ഒരു അവസരം എന്താണ് പറയുക അവസ്ഥയിൽ എൻ്റെ നിരപരാധിത്വമോക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റി അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കത് തരണം ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു അപ്പോൾ അതൊരു വലിയ എൻ്റെ ജീവിതത്തിലെ നേരിടേണ്ടി വന്ന വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്